ക്രീയേറ്റീവ് റൈറ്റിംഗ് കോഴ്സ് പഠിച്ചിട്ടുണ്ട് ഞാന് ഡിഗ്രി കഴിഞ്ഞിട്ട് അതിന് എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റിംഗിന് വേണ്ടീട്ട് നമ്മൾ ഒരു സ്പെഷ്യലായിട്ടൊരു കോഴ്സ് എടുത്ത് പഠിക്കും അതില് നമുക്ക് എന്തൊക്കെയാ നമുക്ക് അറിയാത്ത കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു തരും നമ്മക്ക് ഒരു ബുക്ക് എഴുതാൻ പോകുമ്പോ അല്ലെങ്കിൽ ഒരു നോവൽ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എഴുതാൻ പോകുമ്പോൾ അതിന് എന്തൊക്കെ തടസങ്ങളാണ് നേരിടുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കവിതയൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടേ എന്നുള്ള കാര്യങ്ങള് പിന്നെ എങ്ങ എങ്ങനത്തെ കഥകളും കവിതകളൊക്കെ മറ്റുള്ളവരെ നല്ലപോലെ ആകർഷിക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് ഒക്കെ വേണ്ടീട്ട് അവര് എല്ലാം ആ റൈറ്റിംഗില് എന്തൊക്കെയാണ് എന്നുള്ള എല്ലാം ഉൾപ്പെടുത്തിട്ട് ഒരു എന്താണ് ക്ലാസ് അവര് പ്രീപെയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ക്രീയേറ്റീവ് കോഴ്സിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു നല്ല ക്ലാസ്സായിരുന്നു നമ്മുക്ക് നമ്മള് പ പഠിച്ചതിനെ പറ്റി വെച്ച ഏറ്റവും നല്ലൊരു ക്ലാസ്സാണ് എന്ന് തന്നെ പറയാം അതിൽ എന്തൊക്കെയാണ് അവര് നമ്മൾക്ക് നമ്മളുടെ ചീത്തവശങ്ങൾ എന്തൊക്കെയാണ് നല്ല വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവര് കൃത്യമായിട്ട് വ്യക്തമായി പറയുന്നുണ്ട് എന്നാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം